ഇടയ്ക്ക് ഒരു വിദേശ ചാനലിൽ വന്ന ഒരു വാർത്ത എനിക്ക് കുറച്ച് ആവേശം അല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് ഒരു നല്ല ഒരു അഭിപ്രായം അല്ലെങ്കിൽ കുറച്ച് ഇൻ്ററസ്റ്റ് തോന്നിയ ഒരു വാർത്തയായിരുന്നു ആ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ കുതിക്കുന്നു അതായത് ഇന്ത്യ വളരെ മുന്നോട്ട് വേഗത്തിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു വാർത്തയായിരുന്നു അത് ലക്ഷ്യം പിന്നീട് പ്രമേയം ആക്കുന്നത് അറിഞ്ഞ് ഇന്ത്യയുടെ സമ്പത്ത് ഘടന അല്ലെങ്കിൽ ഇന്ത്യയുടെ വളർച്ച തന്നെയാണ് അവര് ഉദ്ദേശിച്ചത് ഇപ്പോൾ ഏതു മേഖലയിൽ ആയാലും ഇപ്പോൾ കാർഷികമേഖലയിലും സമ്പത്ത് വ്യവസ്ഥയിൽ ആയാലും പ്രതിരോധത്തിൻ്റെ മേഖലയിൽ ആയാലും എല്ലാം ഏതു മേഖല നോക്കുകയാണെങ്കിലും ഇപ്പോൾ നമ്മുടെ ഭാരതം കുറച്ചുകൂടെ അല്ലെങ്കിൽ പണ്ടത്തേക്കാട്ടിലും ഒരു നല്ല സ്പീഡ് കുറച്ചുകൂടി നല്ല സ്പീഡിലാണ് മുന്നോട്ട് പോയ്കൊണ്ടിരിക്കുന്നത് നമ്മുടെ എല്ലാ മേഖലയും ഒരു പടി മുകളിലേക്ക് കേറിയിട്ട് അല്ലെങ്കിൽ കുറച്ചധികം വളർച്ച കൈവരിച്ചു കൊണ്ട് ഇരിക്കുന്നു നമ്മളിപ്പോൾ ഏത് ദിവസം ഏത് മേഖല നോക്കുകയാണെങ്കിലും പ്രതിരോധം ആയാലും സമ്പത്ത് വ്യവസ്ഥയായാലും നമ്മുടെ പണ്ടെന്ന് പറയുമ്പോൾ പ്രതിരോധ മേഖലയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധനങ്ങള് അതായത് യുദ്ധത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കളൊക്കെ നമ്മള് പുറത്തു നിന്ന് മേടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നേരെ മറിച്ച് നമ്മള് നമ്മുടെ സ്വന്തമായി എല്ലാ സാധനങ്ങളും ഭാരതത്തിൽ ഉണ്ടാക്കി പുറംരാജ്യങ്ങൾക്ക് നമ്മുടെ ടെക്നോളജി അല്ലെങ്കിൽ നമ്മുടെ സാധനങ്ങള് കയറ്റി അയക്കുകയാണ് വേറെ രാജ്യങ്ങൾക്ക് കയറ്റി അയച്ച് അവർ ആ ആ രീതിയില് സമ്പാദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ നോക്കുകയാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഏവിയേഷൻ ഫീൽഡ് നോക്കുകയാണെന്ന് പറയുമ്പോൾ കുറേ അധികം എയർലൈൻസുകള് ഇപ്പോൾ പ്രൈവറ്റൈസ് ആയിട്ട് തന്നെ കുറേ അധികം എയർലൈൻസുകൾ നമ്മുടെ ഇതിലേക്ക് ഇപ്പോൾ കയറി വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഏവിയേഷൻ രംഗത്തു വേറെ നോക്കുകയാണെന്ന് പറയുമ്പോൾ ഇസ്രോന്റെ വൻ വളരെ അധികം മുന്നോട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇസ്രോ വേറെ നമ്മുടെ നാസ അല്ലെങ്കിൽ ഈ വേറെ റഷ്യയുടെ അതിനെക്കാട്ടിലും വെച്ച് നോക്കുമ്പോൾ ഒരു പടി മേലേക്ക് നിൽക്കുകയാണ് എവിടെയും ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ചന്ദ്രയാൻ ത്രീ ടെക്നോളജി നോക്കുകയാണെന്ന് പറയുമ്പോൾ വേറെ രാജ്യങ്ങൾ ഒന്നും ചെയ്യാത്ത ചന്ദ്രൻ്റെ ആ ഭാഗ അതായത് സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യാൻ പറ്റിയ അത്രയും എന്താണ് വേറെ രാജ്യങ്ങൾക്ക് ഒന്നും പറ്റാത്ത ആ ഒരു സംഭവം നമ്മൾ അറ്റെയിൻ ചെയ്തു അങ്ങനെ ഇപ്പോൾ നമ്മുടെ കൃഷി കാർഷിക മേഖല നോക്കുകയാണെന്ന് പറയുമ്പോൾ നമ്മള് കൂടുതലായിട്ടുള്ള ഭക്ഷ്യ ഭക്ഷ്യ ഉൽപ്പാദനം ഇപ്പോൾ വളരെ അധികം ഇപ്പോൾ നെല്ലിൻ്റെ ആയാലും ഗോതമ്പായാലും ചോളം ആയാലും ബാജ്റ ആയാലും ഏതു സംഭവം നോക്കുകയാണെങ്കിലും നമ്മള് കൂടുതലായിട്ടുള്ള ഉല്പാദനം ഭക്ഷ്യ മേഖല മാത്രം അല്ല ഇപ്പോൾ നമ്മള് ചണം അതായത് ജൂട്ട് ഫൈബർ അങ്ങനത്തെ സാധനങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇതില് നമ്മള് കുടുതലായിട്ട് നമ്മുടെ ഉല്പാദനം വർധിച്ചിട്ടുണ്ട് പിന്നെ നമ്മള് നോക്കുകയാണെന്നു പറയുമ്പോൾ നമ്മുടെ സമ്പത്ത് വ്യവസ്ഥ മൂന്ന് ശതമാനം ഒരു ശതമാനം ഒക്കെ ആയിരുന്നു പണ്ട് നമ്മുടെ വളർച്ചാനിരക്ക് എന്ന് പറയണത് ഇപ്പോൾ നമ്മൾ ഇയർലി നോക്കുകയാണെന്ന് പറയുമ്പോൾ ഏഴ് പോയിന്റ് അഞ്ചു അഞ്ച് പോയിന്റ് ഏഴ് ആ നിലയിലേക്ക് അതായത് അതില് വലിയൊരു മാറ്റം തന്നെ ആണ് അപ്പോൾ അങ്ങനെ ഉള്ള മാറ്റങ്ങള് നമുക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ അത്രയും വളർന്നു കൊണ്ട് ഇരിക്കുകയാണ് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളർന്നുകൊണ്ട് ഇരിക്കുന്ന വികസന വികസിത രാജ്യങ്ങളിൽ നമ്മള് ഇപ്പോൾ വളരെ മുൻപിൽ ആണ് പിന്നെ ഇപ്പോൾ ഈ അടുത്ത് ജി ട്വന്റി ഉച്ചകോടിയിൽ മേധാവിത്വം വഹിക്കാൻ സാധിച്ചു അതെല്ലാം നോക്കുമ്പോൾ നമുക്ക് മനസിലാക്കാം നമ്മുടെ ഭാരതം എത്രയോ മുന്നോട്ട് പോയി പണ്ടുള്ള കാലങ്ങളെ വെച്ച് നോക്കുമ്പോൾ എത്രയോ മുന്നോട്ട് നമ്മുടെ ഭാരതം ഈ നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ കീഴിൽ നല്ലൊരു രീതിയിലേക്ക് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്